വനിത ഗൃഹലക്ഷ്മി ആരോഗ്യം പൂമ്പാറ്റ ബാലരമ കളിക്കുടുക്ക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്തെ പ്രമുഖമായ മാസികകൾ ഇതിൽ പൂമ്പാറ്റ ബാലരമ കളിക്കുടുക്ക ഇതെല്ലാം കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളാണ് വനിത ഗൃഹലക്ഷ്മി തുടങ്ങിയ ആരോഗ്യം യാത്ര അതൊക്കെ മുതിർന്നവർക്കുള്ള മാസികകളാണ് പിന്നെ ബോബൻ മോളി ബോബനും മോളിയും പ്രായഭേദമന്യേ എല്ലാവരും വായിക്കുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള ഒന്നായിരുന്നു എല്ലാ കാലത്തും എല്ലാവർക്കും അത് ഇഷ്ടമാണ് നല്ല രസമാണ് ടോംസ് എന്ന് പറയുന്ന കാർട്ടൂൺണിസ്റ്റിൻ്റെ അതിപ്രശസ്തമായ രചനയാണ് ബോബനും മോളിയിലും ഉള്ളത് പിന്നെ വനിതയും ഗൃഹലക്ഷ്മിയും പോപ്പുലറായ സാധാരണ ദ്വൈമാസിക ദ്വൈവാരിക പ്രസിദ്ധീകരണങ്ങളാണ് അതിനകത്ത് പൊതുവായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും എങ്ങനെയെങ്കിലും പ്രശസ്തരായ വ്യക്തികളെ ഫീച്ചറോ പൊതുഅറിവിലേക്കായിട്ടുള്ള ഫീച്ചറോ പ്രത്യേകമായിട്ട് സ്ത്രീകളെ കൺസിഡർ ചെയ്തിട്ട് അവരെ പരിഗണിച്ചോണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനാത്തുണ്ടാവ്ണെ അതൊക്കെയാണ് പ്രമുഖമായ മാസികകൾ എന്ന് പറയുന്നത് പിന്നെ യാത്ര യാത്രകളെപ്പറ്റി പുതിയ സ്ഥലങ്ങളെപ്പറ്റി അവിടെ എത്തുന്നതിനെപ്പറ്റിയിട്ട് അങ്ങനെയുള്ള പ്രമുഖമായ വിനോദമാർഗ്ഗങ്ങളെ പറ്റി അതിനെയൊക്കെപ്പറ്റിയിട്ടുള്ള മാസികയാണ് അത് സ്വാഭാവികമായിട്ടും യാത്രയിൽ താൽപര്യമുള്ള അത്ര ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള മാസികയാണ് പിന്നെയുള്ളത് ആരോഗ്യമാസികയാണ് പേരുപോലെത്തന്നെ ആരോഗ്യസംബന്ധമായ വിഷയങ്ങളെപ്പറ്റിയിട്ടാണ് ആ മാസികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അത്രയും ഫീച്ചറുകളെക്കെ കാണും പിന്നെ ബാലരമയാണ് കുട്ടികളുടെ ഇടയില് പോപ്പുലറായിട്ടുള്ള മാസികാന്ന് പറയുന്നത് അത് അമർചിത്രകഥകളാണ് പിന്നെ അത്തരം കഥകൾ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനൊരു ഒന്നാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് വായിക്കാൻ പാകത്തിനുള്ള മാസികയാണ് അതിൽ താഴെ നേഴ്സറിക്കാർക്കുള്ള ആക്ടിവിറ്റീസും അവർക്ക് വായിക്കാൻ വേണ്ടിയുള്ള കഥകളൊക്കെ ആയിട്ട് വായിച്ച് കൊടുക്കാനും വായിച്ച് പഠിക്കാനും ആയിട്ടുള്ള കഥകളുള്ള ഒന്നാണ് കളിക്കുടുക്ക എന്ന് പറയുന്നത് അതും വളരെ പോപ്പുലർ ആണ് പിന്നെ ബാലമംഗളം പൂമ്പാറ്റ അങ്ങനെത്തെ തരം പ്രസ്തീകരണങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം തന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ സ്വാഭാവികായിട്ടും അല്ലാത്ത മാസികകളുണ്ട് അല്ലാത്ത മാസികകളെന്ന് പറയുന്നത് കുറേ പിന്നെ മറ്റ് ആള് എങ്ങനെ വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് മാസികകളൊക്കെ ഉണ്ട് റീഡേർസ് ഡൈജസ്റ്റ് വീക്ക് അങ്ങനെയുള്ള മാസികയൊക്കെ അത് പക്ഷെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതല്ല ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള മാസികയാണ് റീഡേർസ് ഡൈജസ്റ്റ് കുട്ടികളുടെ മാസികയാണ് നല്ല മാഗസിനാണ് അതിൻ്റെ തന്നെ മലയാളം വേർഷന് ഉണ്ട് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതും കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള മാസികയാണ് അത് കുറച്ചുകൂടെ ലൈറ്റ് വേർഷനാണ് റീഡേർസ് ഡൈജസ്റ്റ് ഇച്ചിരികൂടെ കട്ടികൂടിയ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ടോപ്പിക്ക് ഹാൻഡ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ വീക്ക് ഒക്കെ കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് മാഗസിൻ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഇംഗീഷ് മാഗസിനാണ് ഇതൊക്കെയാണ് പ്രമുഖ പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെയാണ് അതിലെ കണ്ടൻസ് ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർ വായിക്കുക എന്നുള്ളതാവും വനിതയും ഗൃഹലക്ഷ്മിയൊക്കെ എല്ലാവരെയും ഫോക്കസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിലെ ബാലമംഗളം കളികുടുക്ക പോലെയുള്ള പ്രസിദ്ധീകരങ്ങൾ പക്ഷേ റീഡേസ് ഡൈജസ്റ്റും വീക്കും ഒക്കെ ആവുമ്പം കുറച്ചുകൂടെ മാറും പിന്നെ ന്യൂസ് പേപ്പറ് വേറെ ഉണ്ട് അതിനകത്ത് ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദു വരും മനോരമ മംഗളം മാതൃഭൂമി അതൊക്കെയാണ് മലയാളത്തിലെ പ്രമുഖമായ ദിനപ്പത്രങ്ങളെന്ന് പറയുന്നത് ഏറ്റവും സർക്കുലേഷൻ വൈസായ ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് മനോരമയൊക്കെയാണ് മനോരയും മാതൃഭൂമിയെക്കെയാണ് പിന്നെ ദീപിക കുറേക്കൂടെ അത് ക്രിസ്റ്റ്യൻസിൻ്റെ ഇടയിൽ മാനേജ്മെൻ്റ് അങ്ങനെയായതുകൊണ്ട് അവരുടെ ഇടയിൽ പോപ്പുലറാണ് മംഗളം കുറച്ചുകൂടി വ്യാപാരിളുടെ ഇടയിൽ പോപ്പുലറാണ് അപ്പം ആ അങ്ങനെ പോപ്പുലറായി നിൽക്കുന്ന ന്യൂസ് പേപ്പറുകളാണ് പിന്നെ ഹിന്ദു പോലെയുള്ള പത്രങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ഭയങ്കര താല്പര്യമുള്ള ആളുകൾ ഡിപെൻറ്റ് ചെയ്യുന്ന പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സ് കുറച്ച് കൂടി ലൈറ്റ് വേർഷൻ ആണ് കുട്ടികൾക്ക് വായിക്കാനായിട്ടാണ് കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്രിഫറ് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ വായിക്കുന്നവരെ സംബദ്ധിച്ചിട്ടും ഹിന്ദു പോലെയുള്ള ന്യൂസ് പേപ്പർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നതും വായിക്കുന്നതും